ഞാൻ പത്തിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ചമ്മന്തി അമ്മിക്കല്ലിൽ അരച്ചിട്ടുണ്ടാക്കിയത് പഠിച്ചത് അപ്പം എന്താ പറയുക ആ ആ ഒരു സംഭവം ആ ഒരു വിഭവമെന്ന് പറയുന്നത് ആദ്യം തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞത് എല്ലാവർക്കും എൻ്റെ ചമ്മന്തി ഭയങ്കരിഷ്ടമായിരുന്നു ആ ഒരു സമയത്ത് ഇപ്പം ഞാൻ അത് അതിന്നെക്കെ മാറി പിന്നെ ആ ഒരു കൊറോണ ആയ ഒരു സമയത്തൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ച് തുടങ്ങി കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങി അതായത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത് ചെമ്മീൻ ബിരിയാണി ആയിരുന്നു ആ ഒരു സമയത്ത് അപ്പം അതൊരു അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലൊരു വിഭവം ആയിരുന്നൂന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അത് മുട്ട ബിരിയാണിയിലേക്ക് മാറി അങ്ങനെ പിന്നീട് ഇറച്ചി ബിരിയാണി അങ്ങനെ അങ്ങനെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്ത് കൊണ്ടിരുന്നു പിന്നെ എന്താ പാചകത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരഭിപ്രായം തന്നെയാണ് അനുഭവം തന്നെയാണ് പാചകം ഉണ്ടാക്കുന്നതും അത് ചെയ്യുന്നതും അതിനെ അതിണ്ടാക്കി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അവർ നല്ലൊരഭിപ്രായം പറയുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ക എനിക്ക് ഒരുപാട് അങ്ങനെ നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഉണ്ടാക്കിയതിൽ അത്യാവശ്യം എല്ലാം നല്ലൊരു രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതും എല്ലാവർക്കും നല്ലൊരഭിപ്രായം തന്നെയാന്ന് ഉണ്ടായിട്ടുള്ളതും അതു കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പാചകം ചെയ്യുന്നതിലും അതായത് പല പല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കരിഷ്ടമാണ് ഞാൻ അത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഉണ്ട് ഇനി അങ്ങോട്ട് ശ്രമിക്കുകയും ചെയ്യും